മലയാളികൾ അവരുടെ സ്വത്തം നിലനിർത്തുന്നത് പൊതുവെ അവരുടെ ഭാഷയിലൂടെ ആണ് മലയാളികൾ എന്നുള്ള വാക്കുകൾ വാക്ക് തന്നെ വന്നത് മലയാളം എന്നുള്ള ഭാഷയിൽ നിന്നാണ് മലയാളം സംസാരിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ പാരമ്പര്യം ആഘോഷിക്കാനും ആദരിക്കാനൊക്കെ അവരുടെ ഭാഷ പല രീതിയിലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതായത് പാട്ട് പാടാനും നാടൻ പാട്ടുകൾ അവരുടേതായ തന്നെ വായ്ത്താരികൾ അവരുടെ തന്നെ തനിമ നിലനിർത്തുന്നതിന് ആ ഭാഷ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലായാൽ പോലും ഇവർ ഒരുമിച്ചുകൂടുമ്പോൾ ഇവരുടേതായ ഭാഷകളാണ് സംസാരിക്കുന്നത് ആ ഭാഷയിൽ വ്യത്യസ്തമായ രീതിയിൽ ഉള്ള ആശയ വിനിമയങ്ങളും ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളൊക്കെ അതിലുൾപ്പെടുന്നു ഫാഷയിലൂടെ തന്നെ ഇപ്പോൾ യൂറോപ്പിൽ ചെന്ന് ജർമ്മനിയിൽ ചെന്നാൽ ജർമ്മൻ പഠിച്ചവരായിരിക്കും എന്നാൽപ്പോലും മലയാളികൾ ഒത്തുചേരുമ്പോൾ അവർ മലയാളമാണ് സംസാരിക്കുന്നത് അതേപോലെത്തന്നെ ഫ്രാൻസിൽ ചെന്നാൽ ഇറ്റലി ഇറ്റാലിയൻ ഇറ്റലി ഇറ്റാലിയനൊക്കെ പഠിച്ചവരാണെങ്കിലും അങ്ങനെ മറ്റ് ഭാഷകൾ പഠിച്ചവരാണെങ്കിൽപ്പോലും അവർ മലയാളത്തിലാണ് കുടുതലായിട്ട് സംസാരിക്കുന്നത്